ആ ഞങ്ങൾക്ക് മലപ്പുറത്ത് ഒരു പരപ്പനങ്ങാടി ഭാഗത്ത് നമുക്കൊരു സ്ഥലം വേണാമായിരുന്നു ആ പരപ്പനങ്ങാടിയിൽ

ആ വീടും വേണം തൊട്ടപ്പുറത്ത് കൃഷിയും കൂടെ ചെയ്യാൻ പറ്റിയ ഒരു ഇതിൽ

ഒന്ന് നനയ്ക്കാനൊക്കെ കണക സുഖമായി

എവിടെ ഉണ്ട് ഈ സ്ഥലം എവിടെ കാവുങ്ങൽ അല്ലേ എത്ര എത്ര സെന്റാണ് എത്ര ഏക്കറാണ് ഉള്ളത്

എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളും ഒക്കെ നോക്കുകയാണെങ്കിൽ

ആ അങ്ങാടിയുടെ അടുത്ത്

അടുത്തൊരു പള്ളി ഉണ്ടോ നമുക്ക് നിസ്കരിക്കാൻ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് അടുത്ത്

ആ പരപ്പനങ്ങാടി കാവുങ്ങൽ അല്ലേ വേറെ നല്ല സ്ഥലം എവിടെയാണ് ഉള്ളത് അല്ലേ ഓക്കെ ഓക്കെ

അപ്പോൾ നാളെ രാവിലെ ഒരു പത്ത് മണിക്ക് ഞാൻ പരപ്പനങ്ങാടിയിൽ കാവുങ്ങൽ സ്ഥലത്ത് എത്താം നിങ്ങൾക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമല്ലോ അല്ലേ ആ ഓക്കെ അ അങ്ങനെ ആണേൽ നാളെ പരപ്പനങ്ങാടി എത്താം ഞാൻ പത്ത് മണിക്ക് നിങ്ങൾ വരിക ഇത് സംസാരിച്ചങ്ങ് ഡീലാക്കാം എന്നാൽ ആയിക്കോട്ടെ ശരി